കടലിൽ കടലിനടുത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ ഉൾക്കടലിൽ പോയി മീനിനെ വലയെറിഞ്ഞ് പിടിക്കുന്നത് നിരവധി മീനിനെ പിടിച്ചോണ്ട് വന്ന് കരയിൽ അവർ മറ്റുള്ള മറ്റുള്ളവർക്ക് വിൽക്കുന്നു അവരാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലയിൽ ഐസിലിട്ട മീനാണ് എത്തുന്നത് ഇവിടെ എത്തിയശേഷം അടുത്തുള്ള മാനന്തവാടി മൽസ്യ ചന്തയിൽ മീനുകൾ എത്തുകയും അവിടുന്നും വിൽക്കുകയും കൂടാതെ ഓരോ മൽസ്യം വിൽക്കുന്ന കച്ചവടക്കാർക്ക് ബൈക്കുകളിലും ആയി അവിടുന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ വീടുകളിൽ പ്രദേശത്തും എത്തിക്കുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രക്രിയ നടന്നു പോകുന്നത്